നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നതാണേ ഇപ്പം നമുക്ക് വായനാട്ടിൽ ഒരു ഒരാഴ്ച്ച സ്റ്റേ ചെയ്യാനായിട്ട് അങ്ങോട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഡയറക്റ്റ് ട്രെയിനിനാണ് വരുന്നത് അപ്പം നമുക്ക് അതായത് ടൂ വീലർ അതായത് നമ്മൾ രണ്ട് പേരുണ്ട് അപ്പം ടൂ വീലർ വണ്ടി എങ്ങനെയാണ് നിങ്ങൾ റെൻറ്റിന് എത്ര എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ഒക്കെ അറിയാൻ വേണ്ടി വിളിച്ച ട്രിപ്പിൾ നയൻ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം പെട്രോൾ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ തന്നെയാണോ ഉണ്ടാക്കിത്തരുക അതോ അങ്ങനെ അല്ലേ അപ്പം ആണല്ലേ ആ ആ അപ്പം നമ്മൾ ഒരാഴ്ച ഒക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുതരുമോ ആ അങ്ങനെ അല്ലേ ആ ആ ആ ആ അപ്പം പിന്നെ നമുക്ക് അതുപോലെ താമസ സൗകര്യം ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടോ മ് ആ ആ നമുക്ക് അങ്ങനെ വായനാട്ടിൽ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഓക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആയാലും കുഴപ്പം ഇല്ല അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു റിസോർട്ടും പിന്നെ ഏതാണ് ഫുഡും രണ്ടും കൂടെ ഉള്ള ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ വേണമെങ്കിൽ അങ്ങനെയും തരാം നമുക്ക് കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പം പിന്നെ നമ്മൾ വരുന്നത് എപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഓണത്തിൻ്റെ വെക്കേഷൻ ആണല്ലോ അപ്പം നാളെ സ്കൂൾ പൂട്ടുന്നു അപ്പം മറ്റന്നാൾ വരാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പം ഏതൊക്ക വണ്ടിയാണ് പിന്നെ ടൂ വീലർ ആണല്ലേ മ് നമുക്ക് സ്കൂട്ടി ആണ് ആ ആ ആ ആ ഓക്കെ ഓക്കെ മ് നിങ്ങൾക്ക് അപ്പം പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും വേണോ നമുക്ക് ഒരു സ്കൂട്ടി ആണെങ്കിലും മതി അല്ല നമുക്ക് എന്തെങ്കിലും കാറിന് മ് മ് നമുക്ക് ഒന്ന് ആ അതെ അതെ അതെ ആ ഓക്കെ എന്നാൽ ഞാൻ വിളിക്കാം കേട്ടോ മ് ഓക്കെ